ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങളേതൊക്കെയാണ് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ക്രിക്കറ്റ് ഫുട്ബോള് കബഡി ചെസ്സ് അതുപോലെതന്നെ ഹോക്കി ഹോക്കി ഇന്ത്യയുടെ കായിക വിനോദമാണ് ഹോക്കി ഇതൊക്കെയാണ് ആ പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഫുട്ബോളാ ഫുട്ബോളാണ് ഞാൻ കാണാറുള്ളത് ഫുട്ബോള്ന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ജനപ്രിയമായ ഒരു കളിയാണ് ഫുട്ബോള്ന്ന് പറയുന്നത് ഫുട്ബോളിൻൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗോളിയടക്കം പതിനൊന്ന് ആൾക്കാരാണ് ഉണ്ടാവുക ഗോളാരാണോ കൂടുതൽ അടിക്കുന്നത് അവരാണ് വിജയ് ഫുട്ബോള് കണ്ട് നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ടീമ്ന്ന് പറഞ്ഞാൽ അർജൻറ്റീനയാണ് ഞാൻ അർജൻറ്റീന ഫാനാണ് അർജൻറ്റീനയിൽ എനിക്ക് എറ്റോം ഇഷ്ടപ്പെട്ട കളിക്കാരൻന്ന് പറഞ്ഞാൽ മെസ്സി ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അർജൻറ്റീനേൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ് ലിയോ എന്ന് അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കപ്പടിച്ചിട്ടുണ്ട് ആ കപ്പ് വേൾഡ് കപ്പ് മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫുട്ബോള് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെതന്നെ ക്രിക്കറ്റ് ഞാൻ അധികം കാണാറില്ല എന്നാലും ക്രിക്കറ്റില് എനിക്ക് അറിയുന്നത് എനിക്ക് സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെതന്നെ ഗാംഗുലി കോഹ്ലി ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് സച്ചിൻന്ന് പറഞ്ഞാൽ അസാധ്യ കളിക്കാരനാണ് സച്ചിന് ഒരുപാട് ഫാൻസ്ണ്ട് അതുപോലെതന്നെ മെസ്സിക്കും ഒരുപാട് ഫാൻസ്ണ്ട്